ഇന്നത്തെക്കാലത്താണ് ഏറ്റവും കൂടുതൽ പഠിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന നൃത്തരീതി എന്നു പറയുന്നത് ഫസ്റ്റ് നൃത്തരീതിയും അതുപോലത്തന്നെ ക്ലാസ്സിക്കലിൻ്റെ ഉപരി നോൺ ക്ലാസിക്കൽ നൃത്തരീതികളുമാണ് ഇന്നത്തെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതില് ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണ് എങ്കിൽ നമ്മുടെ വിദേശകാര്യ നൃത്തങ്ങളെല്ലാം തന്നെ ഇന്നത്തെ കുട്ടികൾ ഇക്കാലത്തെ കുട്ടികള് അഭിനയിക്കുന്നു എന്നാണ് കലാരൂപത്തിന് അതിൻ്റേതായ പ്രാധാന്യം ഉള്ളതുകൊണ്ടുത്തന്നെ പണ്ടുകാല നൃത്തരീതികൾ എല്ലാവരും കുറച്ച് കുറച്ച് കൊണ്ട് ഇപ്പം വിദേശ കാര്യാലയങ്ങളില് നൃത്തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അത് പഠിക്കുവാനാണ് കൂടുതലായും ശ്രമിക്കുന്നത്